ഞാനിപ്പോൾ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് ഒരു മൂന്നു മാസമായി എനിക്ക് ഞങ്ങളുടെ കോളേജിൽ നിന്നു തന്നെ അവസാന വർഷമായപ്പോഴത്തേക്കും പ്ലേസ്മെൻ്റ് ലഭിച്ചിരുന്നു അപ്പോൾ പ്ലേസ്മെൻ്റിന് എനിക്കൊരു വിദേശത്തേക്കുള്ള കമ്പനിയിലേക്ക് ജോലി കിട്ടി അപ്പം അതിനു വേണ്ടി എനിക്ക് വിസ പ്രോസസ്സിംങ്ങ് ചെയ്യണം അതിനുവേണ്ടി പാസ്പോർട്ട് അപേക്ഷിക്കണം അപ്പോൽ പാസ് പോർട്ടിന് എന്തൊക്കെ രേഖകളാണ് വേണ്ടത് മീൻ ആധാർ കാർഡ് റേഷൻ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് ബെർത്ത് സർട്ടിഫിക്കറ്റ് ഇതൊക്കെ മതിയായിരിക്കും പിന്നെ നമുക്ക് ആധാർ കാർഡ് ഇത് എത്ര സമയം കൊണ്ട് ഇത് പാസ്പോർട്ട് ലഭിക്കും ആറ് മാസത്തിനുള്ളിൽ ലഭിക്കുമായിരിക്കുമല്ലേ പിന്നെ നമ്മൾ ഇതിനു വേണ്ടി പോലീസ് ക്ലീയറിങ് സർട്ടിഫിക്കറ്റ് വേണ്ടേ അപ്പോൾ അതു നമ്മൾ ആട പാസ്പോർട്ട് വന്നു കഴിഞ്ഞിട്ടാണോ നമ്മൾ ചെയ്യേണ്ടത് പാസ്പോർട്ട് പുതുക്കുന്നതിനു മുൻപ് അവരുടെ അടുത്ത് കൊണ്ടു കൊടുക്കണോ പിന്നെ ഇതിൻ്റെ കാലാത് കാലാ കാലവധി എത്ര വരെ ഉണ്ട് ആറ് മാസം അതോ ഒരു വർഷം ആണോ ഇതൊരു ആറു മാസത്തിനുള്ളിലെനിക്ക് എൻ്റെ ജോലിക്ക് ചേരണം അപ്പം അതിനു മുൻപു തന്നെ ലഭിക്കുമായിരിക്കുമോ ആറ് മാസത്തിനുള്ളിൽ പാസ്പോർട്ട് കിട്ടുമായിരിക്കുമോ